ഇന്ന് കേരളത്തില് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അധ്യാപകരുടെയും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും പാഠപുസ്തകങ്ങളുടെയും ഒക്കെ കുറവ് നമുക്ക് കാണാം ഇപ്പോൾ കോളജില് ഒക്കെ പഠിക്കുവര്ക്ക് ആയിക്കോട്ടെ ഇപ്പം ഒരുപാട് ആള്ക്കാർക്കൊന്നും അവരുടെ ബുക്സ് ഒക്കെ ബുക്ക്സിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് കോളേജിലൊക്കെ പഠിക്കുമ്പം അപ്പോൾ അതൊക്കെ ഒന്നും വാങ്ങാനായിട്ട് സാധിക്കില്ല അപ്പം അതുപോലുള്ള കാര്യങ്ങള് ഒക്കെ ഉണ്ടാകുമ്പോൾ ചില വിദ്യാര്ത്ഥികള്ക്ക് സൗജന്യമായിട്ട് പുസ്തകങ്ങള് നല്കുക അതൊക്കെ ഉണ്ടാവണം എന്നാല് മാത്രമേ വിദ്യാര്ത്ഥികള്ക്ക് പഠിക്കാന് ഒരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ അതുപോലെതന്നെ അധ്യാപക ദൗര്ലഭ്യം കൂടി വരികയാണ് അപ്പോൾ അത് പരിഹരിക്കുക എന്താണെന്നു ചോദിച്ചാല് ഇപ്പോൾ മറ്റു മേഖലകളില് നിന്നുള്ള പ്രൊഫഷനുകളെ ഒക്കെ നിയമിക്കുകയാണ് അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഇപ്പം ഒരുപാട് ചില ചില സ്കൂളികളിലൊക്കെ അവസാന കാലങ്ങളില് എക്സാം ഒക്കെ അടുപ്പിച്ചാണ് പാഠപുസ്തകങ്ങളിലെ പോര്ഷൻസ് ഒക്കെ തീര്ക്കുന്നത് എങ്കില് അതിനൊരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പാഠപുസ്തകങ്ങളൊക്കെ ഒരു നല്ല രീതിയില് തന്നെ പഠിപ്പിച്ചു കൊടുക്കാനും അതുപോലെ കുട്ടികള്ക്ക് ഭാരക്കൂടുതലായി ഇപ്പോൾ ഒറ്റയടിക്ക് തന്നെ എല്ലാ ഇപ്പോൾ ഒരുപാട് പോര്ഷന്സ് ഒറ്റയടിക്ക് തന്നെ തീര്ക്കുമ്പോൾ അത് കുട്ടികള്ക്കും ഒരു ഭാരമായിട്ടു തീരും അതില്ലാതെ ഒരു പ്ലാനിങ്ങോട് കൂടി സ്കൂളിലെ സ്കൂളില് നിന്നും ബുക്ക്സൊക്കെ ഒരു ക്യാമ്പടുപ്പിച്ച് ബുക്ക്സൊക്കെ അല്ലെങ്കില് പോര്ഷന്സ് ഒക്കെ എടുത്ത് തീര്ക്കാനും ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ പാഠപുസ്തങ്ങളൊക്കെ വികസിപ്പിക്കുകയും ഒരോ വിദ്യാര്ത്ഥിക്കും സുതാര്യമായ സംവിധാനം നിര്മ്മിക്കുകയും ചെയ്യണം എങ്കില് മാത്രമേ ഇത്തരം ദൗര്ലഭ്യവും അതുപോലെ അപര്യാപ്തമായ പരിശീലനം ഒക്കെ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ